ഹലോ ഹലോ വയനാട് ട്രാവൽസ് ഇതാരാണ് വിളിക്കുന്നത് ആ എവിടെ നിന്നാണ് എന്താണ് വേണ്ടത് ഇപ്പോൾ എല്ലാ ഓൾ വയനാട് ആയിരിക്കും അല്ലേ ഇപ്പം നമുക്ക് പൂക്കോട് അതുപോലെ കുറുമ്പാലക്കോട്ട സൂചിപ്പാറ ഇടയ്ക്കൽഗുഹ അതുപോലെ പടിഞ്ഞാറത്തറ ഡാം പിന്നെ തോൽപെട്ടി അവിടെ ഒക്കെ പോവാൻ പറ്റും ഇതൊക്കെ ഈ പാക്കേജിൽ ഉൾപ്പെടുന്നതാണ് ഇവിടെ നിന്ന് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പം നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്ന ദിവസം മഴ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ട്രക്കിംഗ് ഒന്നും ഉണ്ടാവില്ല കുറുമ്പാലക്കോട്ട പോവാനും അതുപോലെ കുറവാദ്വീപൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ എപ്പോഴാ വരാൻ ഉദ്ദേശിക്കുന്നത് ഈ ആഴ്ച്ച ഒരു ആ അട് ഈ ആഴ്ച എന്ന് പറയുമ്പോൾ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഇപ്പം മഴ കുറച്ച് കുറവുള്ളത് കാരണം എല്ലാ സ്ഥലത്തും പോകാം തോന്നുന്നു അപ്പോൾ ഇനിയിപ്പം അന്നത്തെ ദിവസം നോക്കിയിട്ടായിരിക്കും പ പോകാൻ പോകാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ വരുന്ന ദിവസം ആ ഫാമിലി ആയിട്ടാണോ ആ ആ അപ്പോൾ ഒരു എത്ര ആൾ ഉണ്ടാവും ആ പത്ത് ആൾ ആണോ അപ്പോൾ നിങ്ങൾ വരുന്നത് എങ്ങനെയാണ് വണ്ടിയിലാണോ ഇവിടെ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്നുതന്നെ ഒരു കാർ ഉണ്ട് അല്ലെങ്കിൽ പക്ഷേ ഇവിടുന്ന് പോവുമ്പോൾ ഞങ്ങളെ ആൾക്കാർ ഉണ്ടാവും കൂടെ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് പോ പോവുന്നത് അപ്പോൾ ഈ ട്രക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ജീപ്പിലൊക്കെ പോവേണ്ടേ അപ്പോൾ അങ്ങനെയാണ് പോവുന്നത് പിന്നെ ഞങ്ങൾ ഫുഡ് ഒക്കെ ഞങ്ങൾ ആ ഇവിടെത്തന്നെ സ്റ്റേ ചെയ്യാൻ പറ്റും നിങ്ങൾ എത്ര ദിവസത്തേക്കാണ് വരുന്നത് ഒരാഴ്ചത്തേക്കാണോ ആ അപ്പോൾ ഈ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെത്തന്നെ ഉണ്ടാവും പിന്നെ ഞങ്ങള ഓഫീസിലെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു അപ്പാർട്മെന്റ് പോലെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഫാമിലി ആവുമ്പോൾ എത്ര റൂം വേണ്ടിവരും പത്ത് ആൾ ആവുമ്പോൾ നാല് റൂം ആണോ ആ ആ ഞങ്ങൾ എന്നാൽ അത് ആൾറെഡി പറഞ്ഞ് വയ്ക്കാം ഇനി വേറെ ആർക്കും കൊടുക്കുന്നൊന്നുമില്ല നിങ്ങൾക്ക് തന്നെ മാറ്റി വയ്ക്കാം എന്തായാലും ഉറപ്പല്ലേ നിങ്ങൾ വരും എന്ന് ആ ആ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നുതന്നെ കൊടുക്കുന്നുണ്ട് രാവിലെയും ഉച്ചയ്ക്കും അതുപോലെ രാത്രി ഒക്കെ കൊടുക്കുന്നുണ്ട് വൈകുന്നേരം ചായ ഇപ്പോൾ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്നുതന്നെ ഫുഡ് നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ അതിന്റെ പാക്ക് അതിൻ്റെ പൈസ ഒക്കെ ഈ പാക്കേജിൽ തന്നെ ഉൾപ്പെടും അപ്പം പോവുന്നിടത്തൊക്കെ ഫുഡ് അറേഞ്ച് ചെയ്യും ഞങ്ങൾ തന്നെ ഹലോ ഫുഡിൻ്റെ മെനു എന്ന് പറയുമ്പോൾ രാവിലെ ഇഡ്ഡലി ദോശ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പിന്നെ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടം ഉള്ളത് എന്താണ് ബിരിയാണി ആണെങ്കിൽ ഇപ്പോൾ പോവുന്ന സ്ഥലത്ത് എന്താണോ ഉള്ളത് ബിരിയാണിയോ അല്ലെങ്കിൽ മന്തിയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അതുണ്ടാവും പിന്നെ രാത്രി പൊറോട്ട അതുപോലെ ദോശ അങ്ങനെ അങ്ങനത്തെ ആയിരിക്കും ചോറ് രാത്രി ചോറ് ആ അങ്ങനെ പറ്റുവാണെങ്കിൽ നോക്കാം ആ ഇപ്പോൾ നമ്മൾ എവിടെയാണ് ഉള്ളത് അവിടെ അവൈലബിൾ ആയ ഫുഡ് കിട്ടും നിങ്ങൾ പറയുമ്പോൾ ചോദിച്ചു നോക്കാം അങ്ങനെ കിട്ടുമോ എന്ന് നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ചിട്ട് വിളിച്ചാൽ മതി പിന്നെ ഞാൻ പാക്കേജ് പിന്നെ പറയാം നിങ്ങൾ ഒന്നുകൂടെ വിളിക്കുമല്ലോ അപ്പോൾ പറയാം ഞാൻ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ എന്നാൽ ഓക്കെ